വയനാട് ജില്ലയില് പ്രധാനമായിട്ടും വളർന്നുവരുന്നത് എന്ന് പറഞ്ഞ് കഴിഞ്ഞാല് അരി ആണ് മെയിനായിട്ട് അതായത് നെൽകൃഷിയാണ് മെയിനായിട്ട് വയനാട് ജില്ലയില് കൂടുതലായിട്ടും കണ്ട് വരുന്നത് പിന്നെ വരുന്നത് എന്ന് പറഞ്ഞ് കഴിഞ്ഞാല് ഇ ധാന്യങ്ങള് ധാന്യ വർഗ്ഗ ധാന്യങ്ങള് എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാല് പലതരം ധാന്യങ്ങളുണ്ട് അതായത് പയറ് വർഗ്ഗങ്ങള് പയറ് കൃഷി നടത്തുന്നുണ്ട് മെയിനായിട്ട് നെൽകൃഷി ആണെങ്കിലും പിന്നെ ചെറിയ രീതിയിലൊക്കെ പയറ് കൃഷിയും പിന്നെ പച്ചക്കറികളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ പഴങ്ങള് എന്ന് പറഞ്ഞ് കഴിഞ്ഞാല് വാഴകൃഷി വാഴ കൃഷിയാണ് കൂടുതലായിട്ടും ആൾക്കാര് ചെയ്യുന്നത് നല്ല ലാഭം കിട്ടുന്ന ഒരു കാര്യമാണ് പഴ അതായത് ഈ കൃഷികള് പിന്നെ പച്ചക്കറികള് ചെയ്യുന്നുണ്ട് അതായത് പച്ചക്കറികളില് തക്കാളി കൃഷി ബീൻസിന്റെ പിന്നെ അങ്ങനെ വാനില അങ്ങനത്തെ കൃഷികളൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ ചെയ്യുന്നതെന്ന് വച്ച് കഴിഞ്ഞാല് കാപ്പി കുരുമുളക് ഇങ്ങനത്തെ കാര്യങ്ങളും കൂടുതലായിട്ടും വയനാട്ടില് ചെയ്യുന്നതാണ് ഇതൊക്കെ വിപണിയില് നല്ല രീതിയില് മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുന്ന ധാന്യ വിളകളും നമുക്ക് കഴിക്കാനുള്ള കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഇത ഇതൊക്കെയാണ്